ആരാ സംസാരിക്കുന്നത്

ആ അതെ അതെ അതെ ആ ആ

അതെ ആ അതെ അതെ ഓക്കെ

ആ ആ അതെ അതെ അതെ അതെ ആ അതെ ആ മ് മ് ഫോണാണോ ആ മ് ആ മ് മ് മ്

കറീ പിന്നെ ചിക്കനുണ്ട് ബീഫുണ്ട് അങ്ങനെ പല കറികളും ഉണ്ട് നല്ല ടേസ്റ്റായിട്ട് ഞങ്ങളെന്താ നോക്കുന്നത് ആ ആ ആ ആ ആ വേറെന്നെ ആ ഒരാഴ്ച്ച വേറെന്തൊക്കെ വേണം ആ ആ ഐസ്ക്രീം വേണോ ഐസ് ആ ആ ജ്യൂസ് ജ്യൂസ് എന്തെങ്കിലും വേണോ ജ്യൂസ് ഐറ്റംസ് എന്തെങ്കിലും വേണോ പിന്നെ പൈനാപ്പിള് ഓറഞ്ച് ആപ്പിള് ആ മുന്തിരി എ നാരങ്ങയോ ഓക്കെ ഓക്കെ

ആ ഇതെല്ലാം ആ ഒരമ്പത് പ്ലേറ്റ് കൂടുതൽ എടുക്കാം എല്ലാം കൂടെ ഒരു പ്ലേറ്റിന് പത്ത് രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം അത് അത് പറ്റില്ല ഇപ്പോഴത്തെ സാധനങ്ങളെ വില അനുസരിച്ചേ അതൊന്നും പറ്റത്തില്ല പണിക്കാരെ കിട്ടാനില്ല പണിക്കാരെ ആ ആ അല്ല അല്ല അല്ല ഇപ്പോഴത്തെ സാധനങ്ങൾ വില അനുസരിച്ച് പണിക്കാരെ കിട്ടാനില്ല അങ്ങനെ അന്വേഷിച്ച് നമ്മൾ നല്ല ടേസ്റ്റി ഐറ്റം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം അതനുസരിച്ച് നമ്മൾ അത്ര ഒത്തിരി കൂടുതലൊന്നും വേടിക്കുന്നില്ല ആ ആ അത് പറ്റില്ല പറ്റത്തില്ല നല്ല പൈസ പിന്നെ ഇപ്പത്തെ സാധനങ്ങളെ വില അനുസരിച്ച് അതൊന്നും പറ്റത്തില്ലല്ലോ നല്ല പൈസയാകും ആ അല്ലല്ല വേറെ നമ്മൾ അല്ല നമ്മൾ വേറെ സർവീസ് വേടിക്കുന്നില്ലല്ലോ ആ നല്ല ഭക്ഷണമാണ് നല്ല ഭക്ഷണമാണ് വേറെ എവിടെന്നും വേടിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി ഞങ്ങൾ തരുന്നത് ഞങ്ങളെല്ലാവർക്കും അങ്ങനെയാ കൊടുക്കുന്നത് ആ ആ ആ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ആ ആ ആ എന്തൊക്കെയാണ് ഓഡറ് ഓഡർ എന്തൊക്കെ ആ ആ ഫ്രൈഡ് റൈസും ചിക്കൻ കറി ആ ആ ആ ഓ അങ്ങനെ സെപ്പറേറ്റ് ആ ആ സാലഡ് ആ അച്ചാറ് പിന്നെ ഐസ്ക്രീമ് ഫൂർ സലാഡ് ആയാലും മതി മതി ആ ആ ജ്യൂസ് വേണ്ടേ ജ്യൂസ് ആ ആ ആ ആ ആ വെള്ളം ആ നമുക്ക് കുപ്പിവെള്ളം ഉണ്ട് കേട്ടോ കുപ്പിവെള്ളം ഉണ്ട് ആ ആ ഓ ഓ ശരി ഓക്കെ ആ ഐസ്ക്രീം മ് സാലഡ് അചാറ് ആ ഓക്കെ ഓക്കെ ഓ ഓക്കെ ശരി ഓക്കെ ശരി ശരി ഓക്കെ